എനിക്ക് നന്നായി പാട്ടുപാടാൻ ഉള്ള ഒരു കഴിവുണ്ട് ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ചെറുതായിട്ടൊക്കെ പാട്ടൊക്കെ പാടുവായിരുന്നു പിന്നെ വീട്ടുകാരൊക്കെ പാടാൻ നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതിനു ശേഷം എന്നെയൊരു അടുത്തുള്ള ഒരു മ്യൂസിക്ക് സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചകളിൽ ഒക്കെ ക്ലാസിന് മ്യൂസിക്ക് ക്ലാസിന് പോകുമായിരുന്നു അതുപോലെ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ സാധകം ചെയ്യുമായിരുന്നു മറ്റേ കുളത്തിലൊക്കെ ഇറങ്ങിയിരുന്നു നമ്മടെ കഴുത്ത് വരെ വെള്ളത്തിൽന്ന് മുങ്ങി സാധകം ചെയ്ത് പ്രാക്ടീസ്ക്കെ ചെയ്യുമായിരുന്നു അതുപോലെ ചെറിയ ചെറിയ പരിപാടികളിലൊക്കെ പാടാൻ പോകുമായിരുന്നു ഇപ്പൊൾ മ്യൂസിക്ക് സ്കൂളുകളിലും അതുപോലെ കോളേജിലും സ്കൂളിലൊക്കെ ആർട്സ് ഡേയും കലോത്സവങ്ങളിലൊക്കെ ഞാൻ പാട്ടു പാടുമായിരുന്നു പിന്നേ അതുപോലെ നല്ല ഫംഗ്ഷൻസ് ഒക്കെയുള്ള സമയത്ത് ഞാനിവിടെ പാട്മായിരുന്നു പാട്ടോക്കെ പാട്മായിരുന്നു എനിക്ക് കൂടുതലും സിനിമ പാട്ടൊക്കെ പാടാനാണ് ഇഷ്ടം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് പിന്നെ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളിൽ ഒക്കെ വരുമ്പോൾ ഞാൻ പാട്ടുപാടാറുണ്ട് സ്റ്റേജില് കേറിയിട്ട് അതൊക്കെ എന്റെ ഒരു ആത്മവിശ്വാസം വർധിപ്പിക്കുമായിരുന്നു ഓരോ സ്റ്റേജിലൊക്കെ കേറി പാടുമ്പോൾ ആ ഒരു പേടിയൊക്കെ മാറി നേരേ നിന്ന് പാടാനുള്ള ഒരു ഇതൊക്കെ ഉണ്ടായി അങ്ങനെ ഇപ്പോഴും ഇടക്കൊക്കെ ഡാൻസ് ക്ലാസിലൊക്കെ ചെയ്യും മ്യൂസിക്ക് സ്കൂളിലൊക്കെ പോകുമായിരുന്നു പോകാറുണ്ട്